അതെ ട്രാവൽ ഏജൻസി ആണ് പറഞ്ഞോളൂ മാഡം ആ ഓക്കെ ഓക്കെ

തിരുനക്കരയൊക്കെ ഒക്കെ അതിൻ്റെ അടുത്തന്നെ ഉണ്ട് ആ ഓക്കെ ആ പറയൂ മാഡം ആ ഓക്കെ ഓക്കെ ആദ്യം നമ്മൾ ഇങ്ങനെ ആളുടെ അനുസരിച്ച് ആണ് പാക്കേജ് വരുന്നത് അഞ്ച് പേർക്ക് പറ്റിയ ഒരു പാക്കേജ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഡേറ്റ് ഡേറ്റ് ഫിക്സ് ആക്കീട്ട് പറഞ്ഞാൽ മതി അടുത്ത മാസം പതിമൂന്ന് ആ അതെ നമ്മൾ നമ്മൾ ഇവിടുന്ന് പോകുന്ന വഴിയ്ക്ക് എവിടേലും കയറണോ അതോ നേരിട്ട് ഗുരുവായൂർ അങ്ങനെ ആണോ ഉദ്ദേശിക്കുന്നത് ഓക്കേ ഓക്കേ അപ്പോൾ നമ്മൾ വെയ്ക്കുന്ന പാക്ക് ഏതാന്ന് വെച്ചാൽ അങ്ങനെ ഒരു പാക്ക് കൊണ്ട് അല്ല നേരിട്ട് ഉള്ളവ വേണം അല്ലെങ്കിൽ ഇങ്ങനത്തെ പാക്കേജ് വേണമെന്ന് പറഞ്ഞോണ്ട് നമുക്ക് ഇടയ്ക്ക് ഉള്ള അമ്പലങ്ങളിൽ ഒക്കെ ആയിട്ട് പിന്നെ ഫുഡ്ഡ് കഴിക്കുന്ന റെസ്റ്റോറൻറ്റ് അത് എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഒരു പാക്കേജാ നമ്മൾ പറയുന്നത് ആ അപ്പോൾ ആ പാക്കേജും ഉണ്ട് മാഡം

അതറിയാൻ ഞങ്ങടെ ഈ നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്താൽമതി അതിൻ്റെ ബാക്കി ഉള്ള വിവരങ്ങൾ ഒക്കെ ഞങ്ങൾ ഈ നമ്പരിലോട്ട് ഇട്ട് തരുന്നത് ആയിരിക്കും ഇതിൽ അഥവാ എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാഡം ഞങ്ങളെ വിളിച്ചാൽ മതി ആ അല്ല ഈ ഡേറ്റ് ഫിക്സ് ആണെങ്കിൽ നമുക്ക് ഇപ്പഴേ ഒരു വിധം ആയിട്ട് എടുക്കായിരുന്നു ആണോ ഓക്കെ ഓക്കെ മാഡം അപ്പോൾ എന്തേലും സംശയമോ ഡൗട്ടോ ഉണ്ടെങ്കിൽ ഈ നമ്പരിലോട്ട് കോള് ചെയ്താൽമതി അല്ലെൽ വാട്ട്സ്ആപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം ഓക്കെ ഓക്കെ താങ്ക് യൂ മാഡം